ഞാൻ ഓൺലൈനിൽ നിന്ന് രണ്ടുദിവസം മുൻപേ മേടിച്ച പ്രോഡക്റ്റാണ് ബെഡ് ഷീറ്റ് ഞാൻ പിന്നെ കോട്ടൻ്റെയാണ് മേടിച്ചത് പിന്നെ അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പില്ലോ കവറും ബെഡ് ഷീറ്റും കൂടെയെന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും അഞ്ഞൂറ് അറുനൂറ് രൂപയാകും നമുക്ക് മേടിക്കണമെങ്കിൽ കോട്ടൻ്റെ അതായത് ഫാമിലിക്കോട്ട് ബെഡ് ഷീറ്റ് മേടിക്കണമെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡ് ഷീറ്റ് പിന്നെ നല്ല അത്യാവശ്യം നല്ല ബെഡ് ഷീറ്റൊക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല കോട്ടൻ്റെ കൂടിയായത് കൊണ്ട് നമുക്ക് നല്ല അതായത് കിടക്കുമ്പോളൊക്കെ നല്ലൊരു സുഖവും കിട്ടുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല അതായത് നേരിയ കോട്ടൻ്റെ തുണിയാണ് പിന്നെ അങ്ങനെ കളറൊന്നും പോകുന്നില്ല പിന്നെ അത്യാവശ്യം നല്ല അത് ഞാൻ വലിയ റേറ്റുമില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് പത്തഞ്ഞൂറു രൂപയ്ക്ക് ഇതിന് ഇരുനൂറ്റിയൻപത് രൂപയേയുള്ളു കോട്ടൻ്റെ ഫാമിലി കോട്ട് ബെഡ് ഷീറ്റിന് പിന്നെ ഇപ്പോൾ പിന്നെ ബെഡ് ഷീറ്റ് അടിപൊളിയാണ് എനിക്കിഷ്ടവുമായി